ആരോഗ്യ മേഖലയിൽ അഴിമതി എന്നു പറയുമ്പം നമ്മൾ കൂടുതൽ അഴിമതി എന്ന് കൂടുതൽ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസ് ആ അതിന് ചെറുതായിട്ട് കാര്യമായിട്ടുണ്ട് പക്ഷെ അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ പറയുന്നത് എന്ന് വച്ചാൽ ഇപ്പം ചില ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പോയത് നിസ്സാര അസുഖമായിട്ടായിരിക്കും പോയത് ചിലപ്പം ഒരു കാലിന് ഒരു ഫ്രാക്ച്ചർ എങ്ങാനമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തല മുതൽ കാല് വരെ അവർ പരിശോധിക്കും അതായത് ഇ സി ജി എടുക്കുക പിന്നെ സ്കാനിങ് കുന്തം കുടച്ചക്രം എം ആർ ഐ അങ്ങനെ ഇങ്ങനേ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടെസ്റ്റുകളും അതായത് നമ്മൾ നിസ്സാരം ചിലപ്പോൾ ഫ്രാക്ചർ എന്നല്ല പറഞ്ഞത് ചിലപ്പോൾ നിസ്സാരം വേറെ എന്തെങ്കിലും പ്രോബ്ലമായിട്ട് പോയതായിരിക്കാം പക്ഷെ എങ്കിൽ കൂടിയും എല്ലാ ടെസ്റ്റുകളും ചെയ്യിപ്പിച്ച് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഗവർണ്മെൻ്റ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ തീരെ നമ്മൾ പവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഇതാണെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ചെന്നാലും കൈക്കൂലി വാങ്ങിക്കുന്ന ഇഷ്ടംപോലെ ഡോക്ടേഴ്സ്ണ്ട് കൈക്കൂലി വാങ്ങിക്കാതെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സുണ്ട് കൈക്കൂലി വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സും ഉണ്ട് അപ്പോൾ അതും വലിയൊരു അഴിമതി തന്നെയാണ് ഇപ്പോൾ ഒരു സർജറിക്ക് ആവശ്യമായിട്ട് വന്നാൽ വീട്ടിൽ പോയി ഡോക്ടറെ കണ്ട് പൈസ കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഈ ഹോസ്പിറ്റലിലെ വൃത്തിയില്ലായ്മ അതുപോലെ എ ടു ഇസ്സ്ഡ്ഡ് ഇപ്പം നമ്മളെ കൊണ്ട് സ്ട്രക്ച്ചറ് കൊണ്ട് പോകുന്ന അവിടം തുടങ്ങി ഓരോരുത്തർക്കും നമ്മൾ പൈസ കൊടുത്ത് ഓരോരുത്തരെയും കണ്ട് പൈസ കൊടുത്ത് അങ്ങനെ പോകുന്ന പല ഇതുണ്ട് കൈക്കൂലി ചെറിയത് അതിൽ താഴേക്ക് അടിയിൽ നിന്ന് തുടങ്ങി തലപ്പത്ത് വരെ നമ്മൾ എന്താണ് പറയുക കൈക്കൂലി കൊടുക്കേണ്ട ഇതുണ്ട് പിന്നെ പിന്നെ ചില ഡോക്ടേഴ്സ് ചില കമ്പനികളുടെ മരുന്നുകൾ മാത്രമേ എഴുതുകയുള്ളു അതായത് അവർക്ക് കമ്മീഷൻ കിട്ടണം അതായത് ആ കമ്പനി ഈ ഡോക്ടറും തമ്മിൽ ഒരു അന്തർ ധാരയുണ്ടാകും അപ്പോൾ ഈ ഡോക്ടർ ഇപ്പാ അത്രയും ഇത് ഇത്രയും പേസൻറ്റേജ് ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്മീഷനായിട്ട് ഇത്ര കിട്ടും എന്നുള്ളൊരു രീതിയിൽ ചില കമ്പനികളും ഡോക്ടേഴ്സും തമ്മിൽ അണ്ടർസ്റ്റാൻഡിൽ പോകുന്നുണ്ട് അപ്പോൾ ആ കമ്പനികളുടെ മരുന്നുകൾ മാത്രമേ ഡോക്ടറ് ചില ഡോക്ട്ടേസ് കുറിക്കുകയുള്ളു നമുക്ക് അതറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ ഈ പുനർജ്ജനി ആ ഒരു ഇതിലെ അവയവ ദാനം അപ്പം അതിൽ നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കൂടുതലും അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണോ വരുന്നത് അപ്പോൾ ആ വരുമ്പോൾ അതിൽ പ്രയോരിറ്റി കിട്ടുന്ന പേഷ്യൻ്റുകലുണ്ടാവാം പക്ഷേ ചില സന്ദർഭങ്ങളിൽ കാശ് വാങ്ങിച്ചിട്ട് ഈ പ്രയോരിറ്റിയുള്ളവരെ താഴേക്കിടുകയും ഈ കാശ് വാങ്ങിച്ചത് ആരാണെന്ന് വച്ച് കഴിഞ്ഞാൽ അവർക്ക് മുൻ അവർക്ക് മുൻ തൂക്കം കൊടുക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഇവൻ മരിക്കാത്ത ആളെ വരെ എന്താണ് പറയുക മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവയവങ്ങൾ എടുത്തിട്ട് കൊടുക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില ഹോസ്പിറ്റലുകൾ വരെ ഇതിന് വേണ്ടിയിട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് എന്നച്ച അവയവ ദാനത്തിന് വേണ്ടിയിട്ട് കാരണം ചോദിക്കുന്ന പൈസ കിട്ടുമല്ലോ അപ്പം അതിന് കേപ്പബ്ളായിട്ടുള്ള ആൾക്കാർ ആരാണോ പൈസ കൂടുതൽ തരുന്നത് ആൾക്കാർ ആരാണോ അവർക്ക് പ്രയോരിറ്റി കൊടുത്ത് അങ്ങനെയും ചെയ്യുന്നുണ്ട് പുനർജ്ജനി പോലെയുള്ള സന്ദർഭം ഇതിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് അതായത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആക്സിഡൻ്റ് ക്രിയേറ്റ് ചെയ്യുക അതും ഉണ്ട് പിന്നെ പിന്നെ ഇപ്പം നമ്മൾ പറയുന്നച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പറയാനുള്ളത് കൊറോണ ടൈമിലുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് പി പി കിറ്റിനും മാസ്കിനുമൊക്കെ വന്ന വിലകൾ അങ്ങ് എന്താണ് പറയുക കുതിച്ചു ഉയർന്നുവെന്ന് പറയാം മാസ്കിനൊക്കെ ആർക്കും വേണ്ടാതിരുന്ന മാസ്കിനൊക്കെ ആ സമയത്ത് ശരിക്കും നല്ല രീതിയിൽ വില ഉയർന്നിട്ടുണ്ട് എന്ന് വച്ചാൽ അതൊരു ആ ഇതിൽ മേഖലയിൽ വരുന്ന അഴിമതിയാണ് പിന്നെ നമുക്ക് ചൂണ്ടി കാണിക്കാൻ ഇഷ്ടം പോലെ പോയൻ്റുകളുണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് കൂടുതലും നമ്മൾ ഈ പറയുന്ന ഈ അവയവദാനമെന്ന് പറയുന്നത് വളരെ പ്രശ്നം തന്നെ ഇപ്പം നമ്മുടെ ജോസഫ്സ് സിനിമയിൽ തന്നെ അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറെയേറെ കാര്യങ്ങൾ ഇനിയുണ്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് പ്രധാനപ്പെട്ടത് ഇത് തന്നെ ഈ അവയവദാനത്തിൻ്റെ ഇതിലാണ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ കൈക്കൂലി ഇതൊക്കെ നമ്മുടെ ആരോഗ്യമേഖലയിൽ വരുന്ന അഴിമതി അഴിമതികളാണ്